ഹലോ ക്യാബ് ഏജൻസിയല്ലേ നമ്മൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നെ ആ അപ്പം നിങ്ങൾ ഞാന് കോഴിക്കോടിലേക്കായിരുന്നു പിന്നെ ബുക്ക് ചെയ്തത് ക്യാബ് അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ പൈസ അഞ്ഞൂറ് രൂപയല്ലേ അയാൾ എന്നോട് എഴുന്നൂറ് രൂപ മേടിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയണ്ടേ ഇത്ര പൈസ ആവും എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ വല്ല വണ്ടിയും വലിയ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിത്ര പൈസ ആവൂലായിരുന്നല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അയാൾ അയാളോട് എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അയാൾക്ക് ഞാൻ പൈസ കൊടുത്തു നിങ്ങൾ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പൈസ ബാക്കി തിരിച്ചു തരുക അങ്ങനെയെന്തെങ്കിലും ഒരു ഇത് ചെയ്യ കാരണം അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും കേസ് കൊടുക്കും ഞാൻ പറഞ്ഞേക്കാം കാരണം നമ്മളോടൊരു പൈസ പറയുക നിങ്ങൾ അപ്പോൾ അയാളോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത്ര പൈസാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കറക്റ്റ് സ്ഥലോം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ കിലോമീറ്റെർ ഒക്കെ നോക്കീട്ട് പറഞ്ഞതാണല്ലോ പൈസ പിന്നെങ്ങനെയാണ് ഇപ്പോൾ കൂട്ടി മേടിക്കുന്നത് എങ്ങനെയാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല ഒന്നുകിൽ എനിക്ക് എൻ്റെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പൊ പിന്നെ ഗൂഗിൾ പേ ചെയ്തു തരുക അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ വേറെന്തെങ്കിലും പണിക്ക് ഞാൻ നോക്കി കൊള്ളാം ആ ഓക്കേ എന്നാൽ അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്